ചൈനീസ് ഫുഡ് ഐറ്റംസ് അത് നമുക്ക് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസൊന്നും നമുക്ക് പെട്ടെന്ന് ലഭ്യമാകുന്നതല്ല ആ അതു കൊണ്ടാണ് അത് ആഗ്രഹമുണ്ട് പക്ഷേ അത് ഇതുവരെ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയിട്ടില്ല പിന്നെ കൊറിയൻ ഫുഡ്കള് അങ്ങനെ വിദേശ രാജ്യങ്ങളിലെ ഫുഡുകളൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് നോക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് അതിന്റെ അകത്തെ നമുക്ക് പാചകം ചെയ്യാനുള്ള

പാത്രങ്ങളുടെയും പിന്നെ നമുക്ക് ലഭിക്കുന്ന ഇൻഗ്രീഡിയൻസിൻറ്റെ അഭാവവും മൂലം അതൊന്നും ചെയ്യാൻ ആയിട്ട് പറ്റിയിട്ടില്ല